ഈ ഒരു സമയമെന്ന് പറയുന്നത് ആട്ജീവിതം എന്ന് പറഞ്ഞൊരു ചലച്ചിത്രം ഇറങ്ങിയ സമയമാണ് അതുകൊണ്ടന്നെ അവസാനം വായിച്ച പുസ്തകമെന്ന് പറയുന്നത് ബെന്ന്യാമിന്റെ ആട്ജീവിതാണ് നജീബ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് സാധാരണക്കാരനായ ഒരാൾ ഗള്ഫില് പോകുന്നതും അതുമായിട്ട് ബെന്ധപ്പെട്ട് അയാൾ വിമാനത്താവളത്തില് നിൽക്കുമ്പോൾ ഒരു കാട്ടറബി അയാള് വന്നിട്ട് മര്ബീന്ന് മര്ഭൂമീന്ന് കൊണ്ടോകെയും പിന്നെ അവിടുന്നു ആടുകളെ നോക്കാനായിട്ടുള്ള ഒരാളായിട്ട് നജീബിനെ നിര്ത്തുക ചെയ്യാണ് അപ്പോൾ ആ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെക്കെ എത്രമാത്രം ഭാഗ്യം ചെയ്ത ആള്ക്കാരാണെന്ന് കാരണം എന്താന്ന് വെച്ചാൽ നജീബ്ന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവിടെ വള്ളം കിട്ടാനില്ല കുളിക്കാൻ കുടിക്കാനും കക്കൂസിപ്പോകാനൊന്നും വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് ദാഹിക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിച്ചാൽ തന്നെ കാട്ടറബിന്റെയ്ന്ന് കിട്ടുന്ന അക്രമക്കെ ആ കഥയിലെ പറയുന്നുണ്ട് ആ ഒരു കഥ വായിച്ചപ്പോഴാണ് നമ്മളൊക്കെ ഭാഗ്യവാന് ഭാഗ്യം ചെയ്ത ആള്ക്കാരാണെന്ന് മനസ്സിലാകുന്നത്

നജീബ് എന്ന ആളുടെ ജീവിതം ആണ് ആട്ജീവിതം അപ്പോൾ അത് വായിച്ചപ്പം അയാളനുഭവിച്ചിട്ടുള്ള അനുഭവം എന്താണെന്ന് മൻസ്സിലാക്കാന് പറ്റുകേം നമ്മളൊന്നും അങ്ങനെ പെടാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാര്ത്ഥന കൂടി പ്രാര്ത്ഥിക്കാനായിട്ട് തോന്നി നജീബ് എന്ന ആൾടെ ഈ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പല മാധ്യമത്തിലൂടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ആടുജീവിതംന്ന് പറയുന്ന ചലച്ചിത്രം ഇറങ്ങിയതിന്റെ ശേഷമാണ് സത്യം പറഞ്ഞാൽ ആട്ജീവിതം എന്ന എന്ന പുസ്തകം ഞാന് വായിച്ചത് ചലച്ചിത്രം കാണാനുള്ള ഒരു താല്പര്യം ഇരട്ടിയാക്കി ആ പുസ്തകം വായിച്ചപ്പോൾ